എൻ്റെ ഒരു കാഴ്ച്ചപ്പാടിൽ പരിസ്ഥിതിയുമായി ബന്ധപ്പെട്ട് ജല മലിനീകരണം അതായത് മത്സ്യബന്ധനവുമായി ബന്ധപ്പെട്ട പരിസ്ഥിതി പ്രശ്നങ്ങൾ എന്നു പറയാനായിട്ട് സാധിക്കുന്നത് പ്രധാനമായും മത്സ്യങ്ങളുടെ ആവാസ വ്യവസ്ഥയെന്നു പറയുന്നത് വെള്ളത്തിലാണ് വെള്ളത്തിലായതുകൊണ്ട് തന്നെ വെള്ളം മലിനീകരിക്കപ്പെട്ട് കഴിഞ്ഞാൽ അതിൻ്റെ ആവാസ വ്യവസ്ഥയെ അത് പ്രതികൂലമായി ബാധിക്കുന്നതാണ് അതുകൊണ്ട് തന്നെ മനുഷ്യൻ പുറം തള്ളുന്ന മാലിന്യങ്ങളും മറ്റ് നശിച്ച് പോവാതെ കാലക്രമേണയായി അവിടത്തന്നെ തന്നെ കിടക്കുന്ന ഈ പ്ലാസ്റ്റിക്ക് പോലത്തെ മാലിന്യങ്ങളെല്ലാം പുഴകളിലും നദികളിലും അതുപോലെ തന്നെ കടലുകളിലും എല്ലാം അടിഞ്ഞ് കൂടുകയും അതിൻ്റെ കാലക്രമേണ അതിൻ്റെ എണ്ണത്തിൽ വർധനവുണ്ടാവുകയും ചെയ്തു അത് ഇങ്ങനെ കൂടുതലായി കൂടുതലായി വരുമ്പോഴത്തേക്കും ഈ ഇതുപോലെ മത്സ്യങ്ങൾക്ക് അതിൻ്റെ ആവാസ വ്യവസ്ഥയെ പ്രതികൂലമായി ബാധിക്കുകയും അതിൻ്റെ ജീവൻ അല്ലെങ്കിൽ ജീവിതത്തിൽ ഒരു പിന്നോക്കത്തേക്ക് പോകുന്ന ഒരു സാഹചര്യം ഉണ്ടാകുകയും ചെയ്യുന്നു അതുകൊണ്ട് തന്നെ അതൊരു വലിയൊരു പ്രശ്നമാണ് മലിനീകരിക്കപ്പെടുന്ന വെള്ളം ശുദ്ധജല മത്സ്യങ്ങളെന്ന് പറയുന്ന കുറേ മത്സ്യങ്ങളുണ്ട് അല്ലാത്ത മലിന ജലത്തിൽ ജീവിക്കുന്ന മത്സ്യങ്ങളുണ്ട് ഇവർ ശുദ്ധജല മത്സ്യങ്ങൾ ജീവിക്കണമെങ്കിൽ ശുദ്ധമായ ശുദ്ധമായ ജലം തന്നെ വേണം മലിന മലിനപ്പെട്ട് കഴിയുമ്പോൾ അതിൻ്റെ ഒരു വംശനാശം സംഭവിക്കാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ് അതുകൊണ്ട് നമ്മളത് നമ്മളെക്കൊണ്ട് കഴിയുന്നത്ര വീതം നമ്മളത് സാധാരണയായി ഇതിനെ പ്രതിരോധിക്കയും ജലങ്ങളും ജലാശയങ്ങളും മലിനപ്പെടുത്താതിരിക്കുകയും ചെയ്യേണ്ടതാണ് പിന്നെ ഉണ്ടായ ഉണ്ടായ മാറ്റങ്ങളെന്ന് പറഞ്ഞു കയിഞ്ഞാൽ ഇപ്പോൾ മീനിൻ്റെ ലഭ്യത വളരെ അധികം കുറവുണ്ടാവുന്നുണ്ട് ശുദ്ധജല മത്സ്യം അതുപോലെ തന്നെ നമുക്ക് സാധാരണയായി ലഭിച്ചുകൊണ്ടിരുന്ന പല പല മത്സ്യങ്ങളുടേയും വംശനാശം തന്നെ സംഭവിക്കാനായിട്ട് ആരംഭിച്ചിട്ടുണ്ട് അതായത് അതിൻ്റെ ആവാസ വ്യവസ്ഥയെ എതിരായി കാര്യങ്ങൾ നടക്കുകയും ചെയ്തുകൊണ്ട് അതിൻ്റെ ആവാസ വ്യവസ്ഥയിൽ മനുഷ്യൻ കൈ കടത്തി ജലത്തെ മലിനമാക്കുന്നതുകൊണ്ട് തന്നെയും അതിന് ജീവിക്കാനായിട്ടൊരു സാഹചര്യം ഉണ്ടാവുന്നില്ല അതുകൊണ്ടതിൻ്റെ വംശം തന്നെ നശിച്ച് പോവുന്നുണ്ട് ഇവയെല്ലാമാണ് ഞാൻ ശ്രദ്ധിക്കപ്പെട്ട കാര്യങ്ങൾ